മലയാള ഭാഷ തൻ മാദക ഭംഗി എന്നുള്ളൊരു പാട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും പക്ഷെ ഈ മാദക ഭംഗിക്ക് കല്ലുകടിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്കവാറും ആൾക്കാര് സംസാരിക്കുന്നതിൻ്റെ ഇടയില് മറ്റു പല ഭാഷകളും കയറി വരും ഏറ്റവും കൂടുതലയിട്ട് കയറി വരുന്നത് ഇംഗ്ലീഷ് ഭാഷ തന്നെയാണ് എത്ര തന്നെ മലയാളം പഠിച്ചൊരു വ്യക്തി ആണെങ്കിലും സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേറെ ഭാഷ കയറി വരുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്കറിയാം ഒരു സാധനത്തിൻ്റെ പേര് മലയാളത്തിൽ ഇന്നതാണെന്നുള്ള കാര്യം പക്ഷേ നമ്മള് സംസാരിക്കുമ്പോഴോ പെട്ടന്ന് നമ്മളതിൻ്റെ മലയാളം മറന്നു പോകും നമ്മള് ഇംഗ്ലീഷില് സംസാരിച്ച് സംസാരിക്കേണ്ടി വരും ഇപ്പോൾ ഒന്നാലോചിച്ചു നോക്കിയേ ഒരാളൊരു സാധനം തന്നു നമ്മളാരെങ്കിലും നന്ദി പറയുമോ ഇല്ല നമ്മളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഭാഷ മാത്രമേ പറയാറുള്ളൂ അല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് സംസാരിക്കുമ്പോൾ മിക്കപ്പോഴും ഈ ഒരു പ്രശ്നം എനിക്കുണ്ടായിട്ടുണ്ട് എഴുതുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല മലയാളത്തില് തന്നെ എഴുതി പോകാൻ പറ്റും വേറെയൊന്നും കയറി വരാറില്ല പക്ഷെ സംസാരത്തിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അതാരുടേയും കുറ്റമല്ല നമ്മള് ജീവിക്കുന്ന സാഹചര്യത്തില് നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ മറ്റു പലരിൽ നിന്നും കേട്ട വാക്കുകളും ഒക്കെ നമ്മുടെ സംസാരത്തിലേക്ക് കയറി വരുന്നതാണ് എനിക്ക് തോന്നുന്നു ഈ നമുക്ക് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഭാഷയെന്ന് പറയുന്നത് മലയാള ഭാഷ തന്നെയാണ് കാരണം മറ്റു പല വാക്കുകളിൽ ഭാഷകളിൽ ആണെങ്കിലും പ്രത്യേകിച്ച് കൂടുതലയിട്ടുള്ള ചിഹ്നങ്ങളൊന്നും അധികമായി ചേർക്കേണ്ടി വരുന്നില്ല നമ്മുടെ ഭാഷയിലാണ് കൂടുതലായിട്ടും പഠിക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ടുള്ളത് അത് കൊച്ചു കുട്ടി എനിക്ക് ഞാൻ കൊച്ചു കുട്ടികൾ പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴാണെനിക്ക് കൂടുതലായും ആ പ്രശ്നം മനസ്സിലാവുന്നത് അവരതിൻ്റെ കൂടെ ചിഹ്നം ചേർക്കുമ്പോൾ ചിഹ്നം മാറി പോകുന്നു വായിക്കാനറിയാം പക്ഷെ എഴുതുമ്പോൾ ചിഹ്നം മാറി പോകുന്നു ദീർഘങ്ങള് മാറി പോകുന്നു ഇത്യാദി പ്രശ്നങ്ങളെല്ലാം വരുന്നു നമ്മള് തന്നെയാണ് നമ്മുടെ ഭാഷയെ കൂടുതലായും മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടതും ഇത്തരം തെറ്റുകൾ ഒഴിവാക്കി സംസാരിക്കാൻ ശ്രമിക്കേണ്ടതും